ഹലോ ആ നമ്മൾ ഒരു വീട് അതായത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് പാസ് ആയിട്ട് ഉണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത് ഫോർ ലാക്സ് ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ത്രീ ലാക്സ് ഉണ്ട് അപ്പോൾ അതിന് അനുസരിച്ചൊരു ചെറിയൊരു വീടാണ് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു രണ്ട് ബെഡ്റൂമും ഒരു ചെറിയൊരു ഹാളും ഒരു അടുക്കളയും ഒരു സിറ്റൗട്ടും അപ്പോൾ അത് എങ്ങനെ ആ അത്രയേ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് എക്സ്ട്രാ എങ്ങനെ അതായത് കെട്ടി ഇട്ടിട്ട് ചെയ്യാൻ

ആണല്ലേ ആ ഹാ ഹാ അല്ല നമുക്ക് ഇങ്ങനെ ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ അവർ തറ അതായത് തറ കൂട്ടി എടുക്കും കെട്ടുമ്പം അങ്ങനെ ആണ് ചെയ്യുന്നത് അപ്പം ആ അങ്ങനെ ആണ് അല്ലേ ആ അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അധികം ഒന്നും ഇല്ല ഞങ്ങൾ ആകെ മൂന്ന് പേരേ ഉള്ളൂ അപ്പം രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കളയും ഒരു സിറ്റൗട്ടും മതി അപ്പം നമുക്ക് നയൻ ലാക്സിന് ഒക്കുവോ എന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു ഒരു ബാത്ത്റൂം കൂടി ആ ഒരു ഉള്ളിൽ അതായത് രണ്ട് ബെഡ്റൂമിനും സെൻറ്ററിലായിട്ട് ഒരു ബാത്ത്റൂം ആണ് ഉദ്ദേശിക്കുന്നത് ഇല്ല പ്ലാൻ വരച്ചിട്ടില്ല അപ്പം നമുക്ക് പ്ലാൻ ഒന്ന് വരയ്ക്കാനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാർ ഇല്ല അപ്പം നമുക്ക് വലിയ പിടിത്തം ഇല്ല ആ അതെ അതെ ആ പഞ്ചായത്തിൽ പ്ലാൻ തന്നിട്ടുണ്ട് ആ ചെയ്യാം അല്ലേ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡിഷണൽ ആയിട്ട് ചെയ്യേണ്ട പുറത്തേക്ക് ഒരു ബാത്ത്റൂം അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ വലിയ ഒരു വീട് ആയിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല അതിന് നമ്മൾ ആ ഒറ്റ ഫ്ലോറേ ഉള്ളൂ പിന്നെ നമുക്ക് മേലേക്ക് അതായത് ഒരു വാർപ്പ് ആയിട്ട് അതിൻ്റെ മുകളിൽ ഓട് വെച്ചിട്ട് അങ്ങനൊരു സെറ്റപ്പ് ആക്കാമെന്ന് വെച്ചിട്ടാണ് കാരണം ഇപ്പോൾ ഭയങ്കര ചൂട് ഒക്കെ അല്ലേ അപ്പം അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആകുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടായിരുന്നു ആണല്ലേ വർക്ക് തുടങ്ങാൻ നമുക്ക് പാസ് ആയിട്ടേ ഉള്ളൂ നമുക്ക് ആദ്യത്ത ഗഡു ഈ അടുത്ത ആഴ്ച വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് മുന്നേ ഒരു ആൾ അപ്പം നിങ്ങൾ അന്വേഷിച്ചപ്പോൾ നിങ്ങള നമ്പർ ആണ് കിട്ടിയത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് ഇല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ആ ആ അപ്പോൾ നിങ്ങൾക്ക് ആ ആ ആ ആ എന്നാൽ ഞാൻ വിളിക്കാം കേട്ടോ എന്നാൽ എന്തായാലും കൺഫോം ആണ് കേട്ടോ നമ്മുടെ കാര്യം ആ ഓക്കെ എന്നാൽ ആ